പാട്ട് പാടുക എന്ന് പറഞ്ഞാലെ പാട്ട് പാടാനൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര നാണമായിരുന്നു പാടും ആരും കേൾക്കേ പാടില്ല ഒഴിഞ്ഞൊക്കെ റൂമിനകത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ പാടുമായിരുന്നു പിന്നെ കുറെ സ്കൂളുകളിലൊക്കെ പോയി തുടങ്ങിക്കഴിഞ്ഞപ്പം ഒരു അഞ്ച് ആറ് ക്ലാസ്സുകളിലൊക്കെ എത്തിയപ്പോൾ അവിടെ ഏഴ് എട്ടിലൊക്കെ ആകുമ്പോൾ ബുധനാഴ്ച്ച ലാസ്റ്റ് പിന്നെ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ അന്ന് എന്താ ബുധനാഴ്ച്ച ഇപ്പോൾ നമുക്ക് പാട്ടുപാടാനും സി സി എന്ന് പറഞ്ഞിട്ട് ഒര് പീരീഡ് ഉണ്ടാകാറുണ്ട് ആ സമയത്ത് അന്നത്തെകാലത്തെ നമുക്ക് കടകളൊക്കെ ഇ സിനിമ ഗാനങ്ങളുടെ പാട്ടുബുക്ക് കിട്ടും അപ്പം ആ പാട്ട് പുസ്തകവും ഒരാള് അല്ലെങ്കിൽ ഒരാള് കൊണ്ടുവരും ആൺകുട്ടികളും പെൺക്കുട്ടികളൊക്കെയായിട്ട് അപ്പം അന്ന് ടീച്ചറ് പറയും എല്ലാവരും പാട്ടുപാടണം ആരും മടിച്ച് നിൽക്കാൻ പാടില്ല അങ്ങനെ പിന്നെ ഒരിക്കൽ കുട്ടികളുടെ കൂട്ടത്തില് ചെറിയതായിട്ട് പാട്ട് പാടാൻ തുടങ്ങി അങ്ങനെ അന്ന് നാണം കാരണം പുസ്തകമൊക്കെ ഇങ്ങനെ മുഖത്തേക്ക് പൊന്തിച്ച് വച്ചിട്ടാണ് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നത് മുഖം ആരുടേലും മുഖത്ത് നോക്കുമ്പഴൊക്കെ ഭയങ്കര നാണമായിട്ട് പാട്ടുപാടുമ്പോൾ വരികളൊക്കെ തെറ്റി പോകാറുണ്ടായിരുന്നു അങ്ങനെ പാടിപ്പാടി പിന്നെ കുറച്ചൊക്കെ അങ്ങനെ പിന്നെ ആളുകള് കൺ കണ്ടാലും കുഴപ്പം ഇല്ല എന്നായി അങ്ങനെ റേഡിയോയില് പാട്ടൊക്കെ കേൾക്കുമ്പോൾ ആ പാട്ടുകളുടെ കൂടെ പാടും അങ്ങനെ പാടി അതിൻ്റെ ഈണവും കാര്യങ്ങളൊക്കെ പാടിതുടങ്ങി പിന്നെ പുസ്തകത്തിലും തന്നെ ആ പാട്ടിൻ്റെ വരികളൊക്കെ കാണാതെ പഠിക്കും പിന്നെ റേഡിയോയില് കേൾക്കും അന്നൊക്കെ പിന്നെ ടേപ്പ് റെക്കോർഡറായിരുന്നു അതില് കാസ്സറ്റ് ഇട്ടിട്ട് പാടുമ്പോൾ അതിൻ്റെ കൂട്ടത്തില് പാട്ടുപാടി അങ്ങനെ പഠിക്കും പിന്നെ ടിവിയില് വന്നു പാട്ടുകള് കേൽക്കുമ്പോൾ ആ ടിവിയിലൊക്കെ പാട്ടുകള് നന്നായിട്ട് കേൾക്കുക അതിൻ്റെ കൂട്ടത്തില് പാടുക അങ്ങനെ ഒക്കെ ആയി അങ്ങനങ്ങനെ പാട്ട് കൂടുതല് അങ്ങനെ പഠിച്ചു ഇപ്പം എന്ന് പറഞ്ഞാല് നമുക്ക് മൊബൈല് യൂട്യൂബിലൊക്കെ കരോക്കിയൊക്കെ എടുത്ത് അതിൻ്റെ വരികളും അതിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ അറിയാമലോ അതിനനുസരിച്ച് പാട്ടി പാടി അങ്ങനെ പഠിച്ചുനോക്കി കല്യാണമൊക്കെ കഴിഞ്ഞപ്പം പിന്നെ ഭർത്താവും തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പാട്ടുപാടുന്ന ആളായിരുന്നു അപ്പം അദ്ദേഹം പറയും അതിനെന്തിനാ നാണിക്കുന്നത് അങ്ങനെതന്നല്ലേ പാടി പഠിക്കുക എന്നുപറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയൊക്ക മൈക്കൊക്കെ വച്ചിട്ട് അങ്ങനെ പാടി പാടി പാടി ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പാടുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ കരോക്കെക്കയായിട്ട് അതിൻ്റെ കൂട്ടത്തിലൊക്കെ പാടി അങ്ങനെ പഠിക്കുക കേട്ട് പഠിക്കുക ധാരാളം തവണ നമ്മള് ഇഷ്ടപ്പെട്ട പാട്ടുകള് ധാരാളം തവണ കേൾക്കും കേട്ട് കേട്ട് കേട്ട് അതിൻറെ കൂട്ടത്തില് പാടി പാടി പാടി അങ്ങനെ കരോക്കിയിൽ നമ്മള് നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളുടെ ഇടയിലൊക്കെ ഇരുന്നങ്ങനെ പാടി കൊടുക്കും പിന്നെ സ്കൂളുകളിൽ നിന്നും അവിടുന്നും കുടുംബത്തിൽ നിന്നൊക്കെ അങ്ങനെ വിനോദയാത്രയൊക്കെ പോകുമ്പോൾ അങ്ങനെ പാടി ഇപ്പം എല്ലാവർക്കും നല്ല അഭിപ്രായമായി